ആ വരൂ വരൂ ആ ഓക്കെ ഓഡിറ്ററിൻ്റെ ഇതിന് വേണ്ടി വന്നതാണോ ആ ഓക്കെ ഇരിക്കൂ ഇരിക്കൂ ആ ഓക്കെ എന്താ പഠിച്ചത് ആ ഓക്കെ എത്ര സി ജി പി എ എത്രയാണ് പ്രോജക്റ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാൽ പ്രോജക്റ്റിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഓക്കെ ആ ആ ആ ഓക്കെ ഓക്കെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഓക്കെ അച്ഛൻ എന്തു ചെയ്യുകയാണ് വർക്ക് ചെയ്യുകയാണോ അമ്മ ഹൌസ് വൈഫ് ആണോ ഓക്കെ ഇപ്പോൾ ഈ ജോബിനെക്കുറിച്ച് എന്തൊക്കെ അറിയാൻ പറ്റും അറിയും ആ ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ജോലി ഞാൻ എന്തിന് ആണ് തരേണ്ടത് അതിപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും ഇപ്പോൾ വേറെ എംകോംകാര് വന്നിട്ടുണ്ട് അപ്പോൾ അവരെ വച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കൂടുതലായിട്ട് ക്വാളിഫിക്കേഷനിൽ പറയാൻ പറ്റുന്നത്

ആ ഓക്കെ നിങ്ങൾ സാലറി എത്രയാണ് പ്രതീക്ഷിക്കുന്നത് ടെൻ തൌസൻഡ് ഒക്കെ ബേസിക്ക് സാലറി അല്ലേ അതൊന്നും ആ നമ്മൾ അത്ര മിനിമം നമ്മൾ കമ്പനിയിൽ എയിറ്റീൻ തൌസൻഡ് ആണ് സ്റ്റാർട്ടിങ് ഓക്കെ ഇപ്പോൾ നമ്മൾക്ക് നൈറ്റ് ഷിഫ്റ്റ് നിൽക്കാൻ എങ്ങനെ ആണ് പറ്റുമോ ആ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈം ആണ് പറ്റുക നമുക്ക് ഇവിടെ മൂന്നു മൂന്നു ഷിഫ്റ്റ് ആണ് ഉള്ളത് രാവിലെ എട്ട് ടു പന്ത്രണ്ട് പന്ത്രണ്ട് ടു ആറ് ആറ് ടു അങ്ങനെ ഉള്ള ഷിഫ്റ്റ് ആണ് ഉള്ളത് ഇപ്പോൾ രാവിലത്തെ ഷിഫ്റ്റ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ ഷിഫ്റ്റ് ആണെങ്കിൽ അങ്ങനെ അതിൽ രണ്ടു ഷിഫ്റ്റ് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫള്കച്ചുവേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം ആ ഓക്കെ അതായത് രണ്ടു ഷിഫ്റ്റും മാറി മാറി ചെയ്യേണ്ടി വരും രാവിലെയും വൈകീട്ടും കാരണം എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതാണല്ലോ നമ്മൾ അത് രണ്ടും വേണമെങ്കിൽ മാറ്റി മാറ്റി തരാൻ പറ്റും ആ ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ ഉണ്ടോ കമ്പനീനെ പറ്റി എന്തെങ്കിലും ആ ഓക്കെ

ആ ഓക്കെ താങ്ക് യൂ